നമസ്കാരം എന്തൊക്കെ ഉണ്ട് സുഖമല്ലേ സുഖം ആദ്യം തന്നെ നമ്മൾ വിളിച്ചപ്പോൾതന്നെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഈ അഭിമുഖത്തിന് വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് ജീവിതം ഒക്കെ എങ്ങനെ പോകുന്നു ഇപ്പോൾ ഈ പുരസ്ക്കാരങ്ങളൊക്കെ ക് കിട്ടിയിട്ട് ഈ ഒരു അവസരത്തിൽ എന്ത് തോന്നുന്നു അതെ അതെ എങ്ങനെയാണ് ഈ സംഗീത ലോകത്തേയ്ക്ക് വന്നത്

ആരെയാണ് സംഗീതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗായിക

ഈ സംഗീത യാത്രയിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമെന്താണ് അതെ നിങ്ങളെ ആരാധകരോട് എന്താണ് പറയാനുള്ളത് അതെ താങ്കൾക്ക് ഇനി എന്താണാഗ്രഹം അതെ പിന്നെ വെ അതെ പിന്നെ വേറൊരു ചോദ്യം നിങ്ങൾ ഏതെങ്കിലും ബന്ധത്തിലാണോ അതെ അതെ പിന്നെ ഇത്രയും തിരക്ക് പിടിച്ച സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ തന്നെ നീ ഞങ്ങൾക്ക് അഭിമുഖം തന്ന നിങ്ങളോട് വളരെ അധികം നന്ദി ഉണ്ട് ഇനിയും ഇനിയും സംഗീതത്തിൽ പുരസ്കാരങ്ങളൊക്കെ കിട്ടി സംഗീത സംവിധാനത്തിലും അഭിനയത്തിലും എഴുത്തിലും എല്ലാം വിജയം കൈവരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഉണ്ടാകും തീർച്ചയായും തീർച്ചയായും അതെ അതെ നന്ദി നമസ്കാരം